പല സ്കൂളുകളിലും ഫീസുകളിലൂടെ ഇത് വ്യത്യസ്തമാണ് ഇപ്പം സി ബി എസ് സിയിലൊക്കെയെന്നു വെച്ചാൽ അവിടെ നല്ല പൈസ പക്ഷെ ഗവൺമെൻറ് സ്കൂളെന്നു വെച്ചാൽ ഫീസൊക്കെ കുറവാണ് പിന്നെ എന്താ പാവപ്പെട്ടവർക്കൊക്കെയെന്നു വെച്ചാൽ ഫീസ് ചെറിയതൊക്കെയാണ് മേടിക്കുന്നത് പക്ഷേ സി ബി എസ് സി സ്കൂളുകളിലൊക്കെ പൈസ നന്നായി നല്ല രീതിയിലാണ് മേടിക്കുകയും ചെയ്യുന്നത് തന്നെ പിന്നെയെന്നു വെച്ചാൽ ഈ കുട്ടികളുടെ ഫീസിനിപ്പം നമ്മുടെ മാതാപിതാക്കൾ അവർ അവർ അദ്ധ്വാനിക്കുന്ന പൈസ വെച്ച് കുട്ടികളുടെ ഫീസ് അടക്കുകയും അതിൻ്റേതായ ഓരോ ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഫീസ് അടയ്ക്കുന്നതും

അതു പോലെ തന്നെ എന്താ കുട്ടികൾക്ക് ആവശ്യമായ സാ ചെയ്ങ്കൊക്കെ മാതാപിതാക്കൾ കൊടുക്കുകയും പിന്നെ അത്രയും ഫീസൊക്കെ കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെ കൊടുക്കുകയും ചെയ്തു ചെയ്തു പിന്നെ കുട്ടി ഒരു സ്കൂളിൽ പ്രവേശനത്തിന് ചെയ്യുമ്പോൾ തന്നെ എന്താ ഫീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേനു തന്നെ മാതാപിതാക്കളുടെ കയ്യിലുള്ള പൈസ ഉള്ള പൈസ ഇപ്പോഴേ കൊടക്കുകയും ചെയ്യുന്നു പിന്നെ സ്കൂൾ പിന്നെ ഫീസുകൾ ചെയ്യുന്നു അപ്പം വ്യത്യസ്തമായാണിപ്പം സ്കൂളുകളിലൊക്കെ ഫീസ് നൽകുന്നതു തന്നെ ഇപ്പം ഇപ്പം ന ഒരു സ്കൂളിൽ മുപ്പതിനായിരം ആണെങ്കിൽ അടുത്ത സ്കൂളിൽ അൻപതിനായിരം അത്ക്ക് അതിനൊക്കെ മുകളിലായിരിക്കും ഈ സി ബി എസ് സി സ്കൂളൊക്കെയെന്നു പറഞ്ഞാൽ നമ്മൾ ഓരോ പോലെ സി ബി സി സ്കൂളെന്നു പറഞ്ഞാൽ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന സ്കൂളാണ് അവിടെയെന്നു പറഞ്ഞാൽ ഫീസ് ഇച്ചിരി കൂടുതലാണ് മറ്റ് സ്കൂളുകളപേക്ഷിച്ച സി ബി എസ് സി സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നതു തന്നെ പിന്നെ ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് പൈസ ഫീസിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഇളവ് വരികയും ചെയ്യുന്നത് പിന്നെ കുട്ടികൾ അവരുടേതായ ആ ഫീസിൻ്റെ ഘടനകളൊക്കെ നല്കുകയും ചെയ്യുന്നത് കുട്ടികളുടെ പഠനത്തിനാവശ്യമായി മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന പൈസകളൊക്കെ ഫീസ് അടക്കി എന്നാലവരുടേതായ ബുദ്ധിമുട്ടിനൊക്കെ സഹിച്ചാണ് ഫീസ് കൊടുക്കുകയും ചെയ്യുന്നത് പിന്നെയെന്നു വെച്ചാൽ കുട്ടികളുടെ മറ്റാവശ്യങ്ങൾക്ക് ചെയ്യുകയും ചെയ്യുന്നു വ്യത്യസ്തമായാണ് സ്കൂളിൽ ഫീസുകളൊക്കെ നൽകുകയും ചെയ്യുന്നു ഓരോ സ്കൂളിലും ഓരേതായായിരിക്കും പിന്നെ ഓരോ കുടുംബത്തിൽ അവരുടെ അവസ്ഥകളനുസരിച്ചാണ് ഫീസ് കൊ ഇപ്പം കൊടുക്കുന്നതു തന്നെ അ തുപോലെ തന്നെ ഫീസിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഏറ്റവും ഇത് ബുദ്ധിമുട്ട് വരുന്നത് ഓരോന്നിൻ്റെ ഓരേതായ ഫീസ് കൊടുക്കുമ്പോൾ തന്നെയൊക്കെ മാതാപിതാക്കളുടെ കൈകളിലുള്ള പൈസ തീരുകയും ചെയ്യുന്നു പിന്നെ അതു പോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് പല പല ഫീസുകൾ കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നതാണ്